ഹലോ ഹലോ രമ്യ അല്ലേ രമ്യ ഡോക്ടറല്ലേ ആ ആ ഞാൻ അഖില ആണ് ആ ആ ഞാൻ എനിക്ക് അലർജീനെ കുറിച്ച് കുറച്ച് ഡൗട്ട് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ ആ അലർജി ഉണ്ടായിട്ടുണ്ട് ഒരു വൺ മന്ത് ആയി ഞാൻ പുറത്ത് പഠിക്കുകയാണ് ബാംഗ്ലൂർ അപ്പം അവിടുത്തെ എന്തുകൊണ്ടാണെന്ന് പറയാൻ പറ്റുന്നില്ല റൂമിൽ ഒന്നും ആർക്കും ഇല്ല അലർജി അങ്ങനെ ഇപ്പോൾ എനിക്ക് മാത്രാ വന്നിട്ട് ഉള്ളത് എന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കാൻ വേണ്ടി ഇല്ല ഫാമിലിയിൽ ആർക്കും ഇല്ല ഫുഡിൻ്റെ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എൻ്റെ ഒന്നിച്ച് എൻ്റെ ഫ്രണ്ട്സ് ഉള്ളതല്ലേ അപ്പോൾ അവർക്ക് ഒന്നും ആ സെയിം ഫുഡ്ഡു തന്നെ അല്ലേ അപ്പോൾ അവർക്കൊന്നും കുഴപ്പമൊന്നും ഇല്ല പി ജി ഫുഡ്ഡ് തന്നെയാ റൂമിൽ ആറ് പേര് ഉണ്ട്

ആ നാട്ടിൽ വന്നപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിലൊന്നും കുറവില്ല അതിൽ കൂടുന്നുവെന്ന് അല്ലാണ്ട് ആ വണ്ണം ഡയറ്റ് ആയത് ഞാൻ തുടരെ കഴിച്ചോണ്ട് ഉണ്ടായിരുന്നു പക്ഷെ കുറവ് ഇല്ല അപ്പം ആ ആ ആ ആ ആ ഓ ഞാൻ എച്ച് എച്ച് മൈറ്റ് അല്ലേ ആ പിന്നെ എനിക്ക് അവിടുന്ന് കിട്ടിയ പിന്നെ അവിടുന്ന് തന്ന ടാബ്ലറ്റിൻ്റെ ഫോട്ടോസ് ഞാൻ അയക്കാം ഡോക്ടർക്ക് ഓയിൻമെൻറ്റ് അതും എങ്ങനെ ആണ് അറിയാൻ വേണ്ടീട്ട് അത് കഴിച്ചിട്ട് കുറവ് ഇല്ല പിന്നെ തന്ന ഓയിൻമെൻറ്റ് അത് അല്ലായെന്ന് തോന്നുന്നു ഇപ്പോൾ ഡോക്ടറ് പറഞ്ഞ ഓയിൻമെൻറ്റ് അല്ലായെന്ന് തോന്നുന്നു തന്നിട്ട് ഉള്ളത് വേറെയാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആയിരിക്കും കുറവ് ഇല്ലാത്തത് ആ ഓ താങ്ക് യൂ ഡോക്ടർ താങ്ക് യൂ താങ്ക് യൂ ആ